ഞാൻ ഇങ്ങനെ പുസ്തകങ്ങളോ കാര്യങ്ങളോ ഒന്നും വായിക്കുന്ന ആളൊന്നും അല്ല നമ്മള് പണ്ടുകാലത്ത് ഇങ്ങനെ പഠിച്ചുകൊണ്ട് ഇരിക്കുമ്പോഴൊക്കെ ബുക്കുകളും കാര്യങ്ങളും നമ്മുടെ പഠിക്കുകയൊക്കെ ആണ് പഠന ആവശ്യത്തിനും കാര്യങ്ങൾക്ക് ഒക്കെ ആയിട്ട് നമ്മൾ ഇങ്ങനെ വായിക്കുകയും കാര്യങ്ങൾ ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു അതുപോലെ ആ ടൈമുകളില് ലൈബ്രറി കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ അവിടെ നിന്ന് പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ വായിക്കുകയും പഠിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാറുമായിരുന്നു ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഇങ്ങനെ ഇത്രയും ഓർത്തുവെക്കാൻ പറ്റിയ രീതിയിൽ ഒന്നും ഇല്ലെങ്കിലും അതിലെ കുറേ നമ്മൾക്ക് ഓരോ ഫാൻ്റസി കാര്യങ്ങളൊക്കെ അനുസരിച്ചും അതുപോലെ പണ്ട് കാലങ്ങളില് ഉണ്ടായിരുന്ന കുറേ കാർട്ടൂൺകാര് കഥാപാത്രങ്ങളും അതുപോലെ നമ്മുടെ പഴയകാല കഥകളും കാര്യങ്ങളൊക്കെ വരുന്ന കുറേ പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ നമ്മള് പഠിച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ ആ ഒരു കാലഘട്ടത്തിന് അനുസരിച്ചുള്ളത് ആയിരുന്നു പിന്നെ അതേപോലെ കവിതകളും കഥ പഴയ പൊങ്കാല കഥകളും കാര്യങ്ങളും ഒക്കെ വായിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു